ഏത് തരത്തിലാണ് ഏതു തരത്തിലുള്ള ന്യത്തമാണ് നിങ്ങൾ കൂടുതലാസ്വദിക്കുന്നത് എനിക്ക് ആദ്യമൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതായത് ക്ലാസിക്കൽ ഡാൻസ് കാര്യങ്ങളൊക്കെയാണിഷ്ടം അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കുട്ടികൾ അതായത് നമുക്ക് ആർട്സ് കാര്യങ്ങളൊക്കെ വരുമ്പം നാടോടി നൃത്തം തിരുവാതിര കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം അതിനിടെ കുറേ കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ കളിക്കുന്ന കാണുമ്പം അതായത് എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട് എനിക്കൊന്നു കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ആദ്യമൊക്കെ ആദ്യം തൊട്ട് ഞാനിങ്ങനത്തെ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട് എനിക്കിപ്പോൾ കളിക്കാൻ പറ്റുള്ളു എനിക്ക് സ്റ്റേജിലൊക്കെ കയറി ഡാൻസൊക്കെ കളിക്കാൻ പറ്റുകയുള്ളുവെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ചു കഴിയുമ്പോൾ നമുക്ക് അതായത് നമ്മൾ കോളേജൊക്കെ പഠിക്കുമ്പം നമുക്ക് ബ്രേക്ക് ഡാൻസ് കാര്യങ്ങളൊക്കെ സ്കൂളിലൊക്കെ വരുന്നത് അപ്പം അന്നത്തെ കാലത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ബ്രേക്ക് ഡാൻസ് പിന്നെ എന്തായാലും ക്ലാസ്സിക്കലിനേക്കാളും നല്ലത് ബ്രേക്ക് ഡാൻസാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ക്ലാസ്സിക്കലല്ലല്ലോ ബ്രേക്ക് ഡാൻസ് നമുക്ക് ഏത് സ്റ്റെപ്പിട്ടിട്ടും നമുക്ക് പാട്ടിനൊത്ത് കളിക്കാം അപ്പം എനിക്കേറ്റവും ഇഷ്ടം ബ്രേക്ക് ഡാൻസാണ്